കുടുംബത്തിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടിയിൽ എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു എല്ലാ ആൾക്കാരും എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ ഏട്ടൻ ഏട്ടൻ്റെ ഭാര്യ അനിയൻ അനിയൻ്റെ ഭാര്യ അങ്ങനെ എല്ലാവരും നിന്നു കുറേ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു ഞങ്ങൾ പാചകത്തിൻ്റെ പണിയിലേർപ്പെട്ടു പാചകത്തിൻ്റെ പണിയിലേർപ്പെട്ടു അതിനിടയിൽ ഓരോ കുടുംബകാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ കുടുംബകാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ പറഞ്ഞു അത് തന്നെ കണ്ണനൊരു പണി ആയിട്ടില്ല കണ്ണൻ്റെ പിന്നെ ജോലിക്ക് വേണ്ടിയിട്ട് ഓൻ പി എസ സിക്ക് ട്രൈ ചെയ്യുന്നുണ്ട് ജോലി ആയിട്ടില്ല അങ്ങനെ പെങ്ങൾ ഓരോ ഓരോ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അങ്ങനെ കുടുംബത്തിലെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഞാൻ ചിക്കൻ കറി ആക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ എല്ലാവരും ഉണ്ടായിന് അപ്പം തേങ്ങ ചിരവി തേങ്ങ ചെരണ്ട ജോലി ഞാനെടുത്തു സുജ ഉള്ളി തക്കാളി അങ്ങനെ ചിക്കൻ കറിക്ക് വേണ്ട കറികളെല്ലാം കറിക്ക് വേണ്ട സാധനങ്ങൾ മുറിച്ച് വച്ചു മുറിച്ച് വച്ച് അത് ഓരോന്നോരോന്നായി ആക്കി ആക്കി വച്ചു ആക്കി ആക്കി വെക്കുന്നേനേടേല് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ട് ഞാൻ ലൈബ്രറിയിൽ ഇന്നലെ വരുമ്പോൾ ഒരു സംഭവമുണ്ടായിരുന്നു അങ്ങനെ ഓരോ സംഭവങ്ങൾ വിവരിച്ചു അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞ് കൊണ്ടിരുന്നതിന് ശേഷം പിന്നെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ട്ന്നു ആഹാരം ആഹാരം ഒരു ചിക്കൻ കറി വെള്ളത്തിലാവും ന്നഞ്ഞു അപ്പം ചിക്കൻ കറി ഞാനാദ്യം ചിക്കൻ കറിയിൽ ഉള്ളി തക്കാളി പച്ചപ്പറങ്കി ഇഞ്ചി എന്നിവയെല്ലാം എണ്ണയിലിട്ട് വരട്ടി വരട്ടി അത് അവിടെ വച്ചു അതിന് ശേഷം ചിക്കൻ പീസ് പീസായി മുറിച്ച് വച്ച് ആ കഷ്ണങ്ങളും അതിന് വേണ്ട അരവ് അരവ് പറഞ്ഞാൽ പറങ്കി മല്ലി കുരുമുളക് ആ സാധനങ്ങളെല്ലാം ഇട്ട് കുഴച്ച് കുഴച്ച് എന്ന് പറഞ്ഞാൽ എല്ലാം കുഴച്ച് അവിടെ വച്ചു കുഴച്ച് അവിടെ വച്ച് ഒരു അഞ്ച് മണിക്കൂർ കഴിയും അതിനിടയിൽ തേങ്ങ ചിരവി തേങ്ങ ചിരവി തേങ്ങ എണ്ണയിൽ വറുത്ത് അവിടെ വച്ചു എണ്ണയിൽ വറുത്തത് അരച്ചു അത് അരച്ചതിന് ശേഷം ചിക്കൻ എല്ലാം ഉള്ളി ഉള്ളി തക്കാളി എന്നിവയെല്ലാം വാട്ടിയതും എല്ലാം എല്ല സാധനങ്ങളും ചിക്കനിലിട്ടിട്ട് കുഴച്ച് വെള്ളമൊഴിച്ച് തീമ വച്ചു തീമ വച്ച് ഒരു പത്ത് മണിക്കൂർ പത്ത് പത്ത് മിന്റ്റ് വേവണം വേവാൻ വേണ്ടി ആ കത്തിച്ച് വെച്ചയ്നെടേല് ഞങ്ങള് ഒരോരോ കാര്യങ്ങളിങ്ങന കുടുംബ കാര്യങ്ങളിങ്ങനേ പറഞ്ഞു വീട് വീട് പണി തൊടങ്ങണം വീട് പണിക്ക് ഇപ്പോ നല്ല ഇപ്പ മോഡലെല്ലം ഇപ്പ ഓരോരു കാണിക്കുന്ന്ണ്ട് വീടെന്ന് പറയുന്നത് മാസിക വാങ്ങണം മാസിക വാങ്ങിയിട്ട് അതിൽ നോക്കണം നല്ല ഇൻറ്റീരിയൽ വർക്കെല്ലം ഉണ്ട് ഇൻറ്റീരിയൽ വർക്ക് എല്ലാം ആ വീട്ടിലുണ്ട് അതേ മാതിരിയുള്ള വീട് പണിയണം അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇന്നലെ ഞായറാഴ്ച്ച ആയിരുന്നു ഞായറാഴ്ച് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് വീട് കുടി കൂടലുണ്ടായിരുന്നു വീട് കുടി കൂടൽ എന്ന് പറഞ്ഞാൽ ഗൃഹപ്രവേശനം ഗൃഹപ്രവേശനത്തിന് പോയിട്ട് നല്ല വീടായിരുന്നു അവിടുത്തെ ഇൻറ്റീരിയൽ വർക്ക് എല്ലാം നല്ല ഉണ്ടായിരുന്നു അങ്ങനെ ആക്കണം എന്നുള്ള ഒരു മോഹം ഉണ്ടായിരുന്നു ഇത് പെങ്ങളോട് പറഞ്ഞു അപ്പം പെങ്ങൾ പറഞ്ഞു ഞങ്ങൾ മുമ്പേ കെട്ടിയ വീടായത് കൊണ്ട് ഇൻറ്റീരിയൽ വർക്കൊന്നും ആയിട്ടില്ല ആ ഇനി അപ്പം ഞാൻ പറഞ്ഞു പേടിക്കേണ്ട കണ്ണൻ്റെ കല്യാണത്തിന് ഇൻറ്റീരിയൽ വർക്കെല്ലാം ആക്കാം ഇൻറ്റീരിയൽ വർക്കോടു കൂടി നല്ല ഒരു അടിപൊളി വീട് കണ്ണൻ്റെ കല്യാണത്തിന് ആക്കാമെന്ന് ആക്കാമെന്ന് അങ്ങനെ ഇങ്ങനെ ഓരോരോ കുടുംബകാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇരിക്കുന്നതിന് ഇടയിൽ എൻ്റെ ചിക്കൻ കറി പാകമായി ചിക്കൻ കറി പാകമായി ചിക്കൻ കറി അവിടെ വാങ്ങി വച്ചു അതിന് ശേഷം പപ്പടം വാട്ടി പപ്പടം വാട്ടി അതും അവിടെ ആക്കി അപ്പം അതിനുണ്ടായിരുന്ന എൻ്റെ കറികൾ അതിനിടയിൽ അനിയത്തി സാമ്പാർ കറി വച്ചു അനിയത്തി പറഞ്ഞാൽ അനിയൻ്റെ ഭാര്യ എൻ്റെ ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ ഒരു പെങ്ങളും ഒരു ഏട്ടനും ഒരു അനിയനും ആണ് ഉള്ളത് അപ്പം നമ്മൾ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ഒത്ത് കൂടും ഒത്തു കൂടുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒത്തു കൂടിയിട്ട് നമ്മെന്നാന്ന് പാചകങ്ങൾ ഓരോന്ന് ആക്കൽ ഓരോരോ കറികൾ ഓരോരാൾ അ അത് അതിനിടയിൽ ഇടയിൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും ചർച്ച ചെയ്യും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇനി ആ ഇന്നലെ ഞങ്ങളാട ഒരു തെയ്യം തെയ്യത്തിന് കളിയാട്ടമുണ്ടായിരുന്നു കളിയാട്ടതിന് എല്ലാവരും പോയി നല്ല അന്നദാനം ഉണ്ടായിരുന്നു നല്ല ഭക്ഷണമായിരുന്നു ആ അവിടെ പോയപ്പം പഴയ കുറേ കൂട്ടുകാരെ എല്ലാം കണ്ടിരുന്നു മുമ്പ് പഠിച്ച ഓരോ ആൾക്കാരെയും അവരെല്ലാം കണ്ടിരുന്നു ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇന്നയാളെ കണ്ടു ഇന്നയാളെ കണ്ടു കുറച്ച് സെൽഫി എടുത്തു ഐസ്ക്രീം കഴിച്ചു ഇങേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു അതിനിടയിൽ കുറേ കോമഡിയുണ്ടായിരുന്നു അമ്പലത്തിൽ കൈ നോക്കുന്നവർ ഉണ്ടായിരുന്നു കൈ നോക്കുന്നവരുടെ എടീല് ഏട്ടൻ്റെ ഭാര്യ പെട്ടുപോയി എങ്ങനെയും അവരു വിടുന്നില്ല അവസാനം അവര് കൈ നോക്കിയിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഭാവിയിൽ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട് പിന്നെ ഇത്രാം വയസ്സിൽ ഇത്രാൾ നിന്നെ കാത്ത് നിൽക്കുന്നത് താങ്ങായി നിൽക്കും അങ്ങനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്ക പറഞ്ഞു അങ്ങനെ ഓരോരോ കുടുംബകാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അന്നത്തെ ആ ഒരു ദിവസം എങ്ങനെയോ പോയി അങ്ങനെ ഓർമ്മകൾ ഓരോരോ ഓർമ്മകൾ പങ്ക് വച്ചു